തീർച്ചയായും ഞാൻ പിന്നെ പഠിക്കുന്ന കാലത്ത് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമായിരുന്നു കത്ത് എഴുതുമായിരുന്നു ഈ കത്ത് എഴുതേണ്ടതും ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ എയിറ്റ് ടു ട്വൽവ് ആ ഒരു പഠിക്കണ കാലഘട്ടമായിരുന്നു ഇപ്പോഴാണ് ഫോണിൻ്റെ ഒക്കെ ഇത് വന്നത് നമ്മളൊക്കെ ഓരൊക്കെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കത്ത് എഴുതും പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് നമ്മുടെ ഇതുണ്ടല്ലോ എ ഫോർ ഷീറ്റല്ല കുറെ ചാർട്ടില്ലേ ചാർട്ടിൻ്റെ ഷീറ്റ് നന്നായിട്ട് ഇങ്ങനെ മോഡേണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും മടക്കിയിട്ട് എന്നിട്ട് സ്കെച്ച് പെൻസിൽ ഒക്കെ വെച്ച് അതിനെ കുറേ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പിന്നെ കുറേ ഇതൊക്കെ എഴുതി കുറേ വാചകങ്ങളൊക്കെ എഴുതും അതൊക്കെ ഒരു രസമായിരുന്നു ഈ ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഡേ അന്ന് ഈ ഇങ്ങനെ വിലപിടിച്ചിട്ടുള്ള ടോയിസോ ഫ്ലവർസോ ഒക്കെ വാങ്ങിച്ച് കൊടുക്കാനുള്ള ഇത് ഇല്ല നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ എഴുതി കൊടുക്കുന്നതാണ് ഒരു സന്തോഷം അതിപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നവർ ഉണ്ട് ഗ്രീറ്റിംഗ് കാർഡിന് അന്ന് ക്രിസ്മസിൻ്റെ സമയത്താണ് കൂടുതലും ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഒരു ഷോപ്പ് ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ തോന്നും അന്ന് ഒരു ഷോപ്പ് സ്റ്റാറിൻൻ്റെ ഒക്കെ ഷോപ്പ് അപ്പം ഗ്രീറ്റിംഗ് കാർഡ് ഫ്രൺഷിപ്പിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാകും ബർത്ത് ഡേൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാകും അന്ന് വാങ്ങിയില്ലെങ്കിൽ അന്ന് വാങ്ങിച്ച് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലൊക്കെ ബർത്ത് ഡേ വരുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും നല്ല മോഡേൺ ആയിട്ട് വരച്ച് ഇതാക്കി ആക്കി പിന്നെ കത്ത് എഴുതും ഇതൊക്കെയൊരു ഒരു ഇഷ്ടമുള്ള ഇതായിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടും ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ